ഈ കേരളത്തിൽ ഒരു ബൈക്ക് യാത്രികനെന്ന് പറഞ്ഞാൽ അവൻ ലൈസൻസ് എടുക്കുന്നത് ഒരു കടമ്പയാണ് പിന്നെയുള്ളത് ഏറ്റവും കടമ്പ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ നശിച്ച റോഡുകളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചു ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടോ എന്തോ ഈ റോഡുകളെല്ലാം വളരെ ശോകം അവസ്ഥയിലാണ് നമ്മുടെ ലൈസൻസിന് അവർ എട്ടല്ല ഇനി ക്ര ഞ അങ്ങനത്തെ വല്ല ഇതും ഇടേണ്ടി വരും കാരണം എന്താണെന്ന് വച്ചാൽ അങ്ങനെ ഓടിച്ചാലേ ഉള്ളൂ ഇപ്പോഴത്തെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ റോഡുകളിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു നിലയിലെങ്കിലും നമുക്കെത്താൻ കഴിയുകയുള്ളൂ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹെൽമറ്റ് മാത്രം പോരാ വല്ല സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് റൈഡിംഗ് ജാക്കറ്റ് അടക്കം ഇട്ട് പോയാലുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്ത് അത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം പിന്നെ കുണ്ടും കുഴിയും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോന ഇങ്ങനത്തെ ഒരു സാധനം വേറെ ഇല്ല പിന്നെ നമ്മൾ ഇപ്പം രാത്രി അതേപോലെ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡിന് എന്തൊക്കെ ക്രോസ് വരുവോ അതൊക്കെ നമ്മൾ കാണേണ്ടിരും ആന പന്നി പട്ടി മരപ്പട്ടി കാട്ടുപൂച്ച എന്തൊക്കെ സാധനങ്ങൾ ഒരു റോഡ് കോസ് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ റോഡ് പണികൾക്ക് വൃത്തിയായി ചെയ്താൽ അപ്പുറത്ത് ഒരു കുഴി കുഴിച്ചു വയ്ക്കും കേബിൾ വലിക്കാൻ ജലസ്രോതസിന് അങ്ങനെ ഒരുപാട് കുഴി പിന്നെ അതിൽ നിന്ന് വരുന്ന പൊടി ശല്യം പുക ശല്യം ഇതൊക്കെ കാരണം മനുഷ്യന് നേരാ വണ്ണമൊന്ന് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഒരുമാതിരി ഭയങ്കര ടഫാണ് ടെഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പുച്ചിക്കൽ ആവും കാരണം എന്താണെന്ന് വച്ചാൽ അതിലും വലുതാണ് നമ്മൾ ഒരു കുട്ടിയെക്കൊണ്ട് എങ്ങട്ടേലും നമ്മടെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് എന്തൊക്കെ ഇട്ടു കൊടുക്കണമെന്നറിയോ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം പിന്നെ അവരുടെ മുഖത്തിന് എന്തൊക്കെ മാസ്ക് വച്ചു ഒക്കെ പ്രൊട്ടക്റ്റ ചെയ്യണം നമ്മൾ ഈ ഈ കാറിലൊക്കെ പോകുമ്പോൾ അല്ല കാറ് പോക്കാണ് മെച്ചം ഏ ബൈക്കിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വൻ സീനാണ് കാരണം എന്താണെന്ന് വച്ചാൽ ഈ കുണ്ടും കുഴിയും റോഡ് സീനാണ് ഏ പിന്നെ പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഉണ്ടാവും മണ്ണിടിച്ചിൽ പിന്നെ ഭൂമി കയ്യേറ്റം അവിടെ വേലി കെട്ടിക്കണു പിന്നെ അവിടെ ട്രാഫിക് പോലീസിൻ്റെ വക ഒരു ഒരുമാതിരിപ്പെട്ട ശോകമാണ് പിന്നെ നമ്മളിപ്പം ഇതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അതിനൊക്കെ ഓൾറെഡി പ്രിപ്പെയറ ആവുക നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വയ്ക്കുക കേരളത്തിലെ റോഡുകള അവസ്ഥ ഇതാണ് അപ്പം നമ്മൾ എന്തായാലും അതിന് സെറ്റായി പ്രിപ്പെയറായിട്ട് നമ്മൾ പ്രോപ്പർ ഒരു ഹെൽമെറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന ഹെൽമെറ്റ് അത് മസ്റ്റാണ് കാരണം എന്താണെന്ന് വച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ പൊടി അടിച്ചു കേറി നമ്മൾ ഒരു വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുടി അതുപോലെ തന്നെ മുഖമൊക്കെ ഇതാവും പിന്നെ നല്ല ഒരു സൺസ്ക്രീനുമിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണ് കാരണം നമ്മൾ ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ കണ്ണിലൊക്കെ ഒരു ലോഡ് ഒരു ഒരു പൊടിക്ക് സംഖ ഒരു സംഖ്യക്ക് എന്നുണ്ട് പൊടി കണ്ണിൽ കയറുന്നുണ്ട് അപ്പം അതിനൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല റൈഡിങ്ങ് ഗെയഴസൊക്കെ ഇട്ട് പോകുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു രക്ഷയുള്ളൂ താങ്ക് യു